ഇപ്പോൾ എൻ്റെ സമീപത്ത് പറയുമ്പോൾ മലമ്പുഴ ഡാമും അവിടെയുള്ള സ്നേക്ക് പാർക്ക് അങ്ങനെയുള്ള വിനോദ സഞ്ചാരങ്ങളാണ് എൻ്റെ അടുത്ത് ഉള്ളത് പിന്നെ സഞ്ചരിക്കാൻ അധികം ചിലവ് ഒന്നും ആവുകയുമില്ല ഒരു ഇരുന്നൂറ് മൂന്നൂറ് രൂപയുണ്ടെങ്കില് അവർക്ക് ഉള്ള ഭക്ഷണം ഉൾപ്പെടെ എല്ലാ ചിലവുകളും ഒരു ദിവസത്തെ ചിലവുകൾ മതി വരുന്നതാണ് പിന്നെ വേറെ അടുത്തുള്ളതെന്ന് വെച്ചാല് വാട്ടർ പാർക്കാണ് അവിടെ ഒരാൾക്ക് അറുന്നൂറ് രൂപ വരും ഒരു ദിവസം ഫുള്ളും അവിടെ നിൽക്കുകയാണെങ്കില് വേറെ വേറെ അനാവശ്യ ചിലവുകൾ ഒഴികെ കുറഞ്ഞ ചിലവുകളിൽ ആൾക്കാർക്ക് ഇവിടെ ഒക്കെ വന്ന് പോകുന്നതായിരിക്കാം

എല്ലാവർക്കും പറ്റുന്ന ഒരു നല്ലൊരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ ഡാം